പാരമ്പര്യകൃഷിയെന്നു പറഞ്ഞാൽ പണ്ട് കൊയ്ത്ത് കാലങ്ങളിലും കലപ്പ കൊണ്ടൊക്കെ കൊണ്ടാണ് കൃഷി ഇല്ലെങ്കിൽ ചവിട്ടി മെതിക്കുന്നതും എല്ലാം ഇന്നാണ് ആധുനിക അത്രയും എല്ലാം വന്നിരിക്കുന്നത് ഇപ്പം എല്ലാം കമ്പ്യൂട്ടറ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അന്നാണ് കപ്പ കാമ്പ് ചേന കാച്ചിൽ അങ്ങനെയുള്ള എല്ലാം ഒത്തിരി വളങ്ങളൊന്നും ചെയ്യാതെയൊക്കെ കഴിക്കുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ പാരമ്പര്യമായ കൃഷിയൊക്കെ ഇന്നിനി ഇന്നെന്തു കൊണ്ടും വിഷമില്ലാത്തതും അങ്ങനെയെല്ലാം കൊണ്ടും പഴയ പാരമ്പര്യ കൃഷികളാണ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പും പണിയും എല്ലാം ഇപ്പോഴെല്ലാം കമ്പ്യൂട്ടർ സംവിധാനത്തിലുള്ള എല്ലാ മെഷീനുകളും ഒക്കെയാണ് ഇപ്പം അന്നു നമ്മൾ ചവിട്ടി മെതിച്ച് നട്ട് കൊയ്ത് മെതിച്ച് ആണ് നെല്ലാക്കിയെടുക്കുന്നത് അതുപോലെതന്നെ കപ്പയിട്ട് ആണെല്ലാം അങ്ങനെ തന്നെയാണെല്ലാ കൃഷികളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എങ്ങനെ പറഞ്ഞാലും പഴയ ആധുനികമായുള്ള കൃഷികളാണ് നല്ലത് ഇപ്പം അതെല്ലാം പോയി ഇപ്പോഴതിലൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല ഇപ്പം കാലം മാറി മാറി വരുന്നതിൻ്റെ അനുസരിച്ച് കൃഷിരീതികളും കൃഷികളും എല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പം അന്ന് കൊയ്ത്തും മെതിയും മെതിയെന്ത്രമില്ല കൊയ്ത്തും യന്ത്രമില്ല ഇന്നിപ്പം ഇന്നിപ്പോൾ അതെല്ലാമുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് അന്ന് ഇന്ന് അങ്ങനെയല്ല നടീൽ തൊട്ട് കൃഷി ഇത് മെതിച്ച് വരുന്നതുവരെയും യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കമ്പ്യൂട്ടറ് സിസ്റ്റമാണ് ഇപ്പം എല്ലാം കാര്യങ്ങളിലും നിൽക്കുന്നത് നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെയാണെപ്പോഴും നല്ലത് പറഞ്ഞ് തീരുമ്പോൾ ഏതിലാണ് ഞെക്കുന്നത് ഇതൊക്കെത്തന്നെ വന്ദേ മാതരം